കോവിഡ് വിവാദ കാലത്തിൽ മാസ്ക് ധരിക്കാത്തവരോട് മാസ്ക് ധരിക്കാൻ ഞാൻ ഒരു തവണ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു അങ്ങനെ ആവശ്യപ്പെട്ടപ്പോൾ അവര് സമ്മതിക്കാത്ത പക്ഷം അവരോട് മാസ്ക് ധരിക്കുന്നതിന്റെ കാരണം അതിന്റെ ഗുണങ്ങൾ അതിന്റെ തീരുമാനം എന്തുകൊണ്ടാണെന്ന് ഞാനവർക്ക് പറഞ്ഞു കൊടുത്തു അതു കഴിഞ്ഞ് ഞാൻ അവരോട് മാസ്ക് ധരിക്കാൻ വീണ്ടും പറഞ്ഞു മാസ്ക് ധരിക്കാത്ത പക്ഷം ഞാൻ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ് സ്ഥലത്ത് ഞാൻ കംപ്ലൈന്റ്റ് ചെയ്യുന്നതാണെന്ന് ഞാൻ ആവശ്യപ്പെട്ടു പറഞ്ഞു കൊടുത്തു